ഹലോ ഇത് ആരായിരുന്നു ഇത് ആരായിരുന്നു അതേ എന്നാണ് വേണ്ടത് കേക്കാണോ എന്നത്തേക്കാണ് ഏപ്രിൽ ഒന്നിനാണോ എത്ര വിലയുടെ എത്ര വിലയുടെയാണ് വേണ്ടത് അര കിലോയുടേതിന് എഴുന്നൂറ് അറുന്നൂറ് രൂപയുടേതാണോ ആ പത്ത് അറുന്നൂറ് രൂപയുടെ അപ്പം ഇനി എത്ര രാവിലെ ആണോ വേണ്ടത് വൈകിട്ടാണോ വേണ്ടത് വൈകുന്നേരം മതിയോ ആ പിന്നെ അപ്പം എന്ത് ഒര് കാര്യം ചെയ്യ് പൈസ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇപ്പം പകുതി തരാം പിന്നെ ഏതാണ് വേണ്ടത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണോ ബ്ലാക്ക് ഫോറസ്റ്റിന് അര കിലോയ്ക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണല്ലോ വേണ്ടത് ആ അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി ബേക്കറി നിങ്ങൾക്ക് അറിയുന്നതല്ലേ ബേക്കറി നിങ്ങൾക്ക് അറിയാമല്ലൊ അപ്പം നാളെ ഒന്ന് ഇത് വന്നിട്ട് ഇത് കുറച്ച് പൈസ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് തരണം ആ എന്നിട്ട് ഒരു കാര്യം ചെയ്യണം നാളേ പകുതി പൈസ തരികയാണെങ്കിൽ നിങ്ങൾ ഒന്നാം തീയതിക്ക് എന്നല്ലെ പറഞ്ഞത് ഒന്നാം തീയതിക്ക് അല്ലേ ഒന്നാം തീയതി വൈകിട്ട് അല്ലേ ആ കുറേ ഓർഡറുകൾ ഉണ്ട് അതാണ് ചോദിച്ചത് ഒന്നാം തീയതിക്ക് രണ്ട് മൂന്ന് ഓർഡറുകൾ ഉണ്ട് അപ്പം നിങ്ങൾ എപ്പോഴാണ് വരുന്നത് സമയം അറിയുകയാണെങ്കിൽ അപ്പോഴത്തേക്ക് അല്ലെ എനിക്ക് ഉണ്ടാക്കി വയ്ക്കേണ്ടത് ഉള്ളു അനുശ്രീ എന്ന് എഴുതണോ ഓക്കെ ഓക്കെ ആ ഓ അത് ഞാൻ ചോദിക്കാൻ മറന്ന് പോയതാണ് ഓ പേര് എഴുതണം അല്ലേ

പിന്നെ വേറെ എന്തെങ്കിലും ബേക്കറി വേണോ അയ്യോ സോറി വേറെ എന്തെങ്കിലും ബേക്കറി വേണോ വേറൊന്നും വേണ്ട വേറെ നല്ല ലഡു അതും ഇതും ഒക്കെയുണ്ട് മധുരം ഉള്ളത് എന്നാലും ബർത്ത് ഡേ കൂടിയല്ലേ അപ്പം കുറച്ച് മധുരം ഉള്ളതൊക്കെ കൂടി മേടിച്ചോ കുറച്ച് അതിന് വില കുറവ് ലഡു വില കുറഞ്ഞ് തരാം

ആ എന്നാൽ എന്നാൽ ശരി എന്നാൽ കൊണ്ടുവന്ന് തരാം നിങ്ങളുടെ വീട് എവിടെയാണ് അമ്പലവയലോ ഓക്കെ നോക്കട്ടെ ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്ത് വിടാം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ഓക്കെ ശരി ശരി ആ ഓക്കെ ഓക്കെ ശരി ആ ശരി ഓക്കെ എടി അനൂ ആ എന്നാൽ ശരി വച്ചോ വച്ചോ